സോഷ്യൽ മീഡിയ നിരുപദ്രവകാരിയായ വിനോദമാണെന്ന് തോന്നാം അതിന് നേട്ടങ്ങളെറെയുണ്ട് എന്നത് ശരിയാണ് അതല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ശതകോടി ആളുകൾ ഇത് ഉപയോഗിക്കില്ല എന്നാൽ നിലവിൽ നിങ്ങളതിൽ ചെലവഴിക്കുന്ന സമയത്തിന് തുല്യമായ മൂല്യം അത് നൽകുന്നുണ്ടോ സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് ഒരു കാര്യം മാത്രമെ ആവശ്യമുള്ളൂ നിങ്ങളുടെ ശ്രദ്ധ എന്തുകൊണ്ട് അതിലൂടെയാണ് അവർ പണമുണ്ടാക്കുന്നത് നിങ്ങളതിൽ കൂടുതൽ സമയം ചെലവഴിക്കുമ്പോൾ അവർക്ക് കൂടുതൽ പരസ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനാകും കഴിയുന്നത്ര അവരുടെ പ്ലാറ്റ്ഫോമിൽ നിങ്ങളെ നിലനിർത്തുകയാണ് അവരുടെ ലക്ഷ്യം ഉപഭോക്താക്കളിൽ സോഷ്യൽ മീഡിയയിൽ ആസക്തി ഉണ്ടാകുന്നതിനുള്ള നടപടികളെല്ലാം അവരെടുക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും അവിടെ എത്തുന്നു പല പ്രമുഖ സോഷ്യൽ മീഡിയ കമ്പനികളും അറ്റെൻഷൻ എൻജിനിയർ എന്ന പേരിൽ ആളുകളെ നിയമിക്കുക പോലും ചെയ്യുന്നുണ്ട് അവർ ലാസ് വേഗാസിലെ ചൂതാട്ട കേന്ദ്രങ്ങളുടെ തത്വങ്ങൾ ആളുകളിൽ ആസക്തിയുണ്ടാക്കാൻ കഴിയുന്നത്ര ഉപയോഗിക്കുന്നു മനുഷ്യരിലെ പ്രലോഭനീയത ചുഷണം ചെയ്യാവുന്ന തരത്തിലാണ് ഫേസ്ബുക്ക് രൂപകല്പന ചെയ്തുവെച്ചിരിക്കുന്നതെന്ന് ഫേസ്ബുക്ക് മുൻ പ്രസിഡെൻറ്റ് ഷോൺ പാർക്ക് ഒരിക്കൽ തുറന്ന് സംസാരിക്കുകയുണ്ടായി നിങ്ങളുടെ സമയവും ശ്രദ്ധയും പരമാവധി എങ്ങനെ വിനിയോഗിക്കാം എന്ന ചിന്തയോടെയാണ് സൈറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനേക്കുറിച്ച് ശരിയായ ബോധ്യം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത വിധത്തിൽ പല വഴികളിൽ നിങ്ങളെ അത് ബാധിക്കുന്നു സോഷ്യൽ മീഡിയ ഉപയോഗം നിങ്ങളെ ബാധിച്ചേക്കാവുന്ന വ്യത്യസ്തങ്ങളായ വഴികളെന്ന് പറയുന്നത് നിങ്ങളുടെ സമയം ഹൈജാക് ചെയ്യുന്നു ഡിജിറ്റൽ ഉപഭോക്താക്കൾ ഉപയോക്താക്കൾ ദിവസവും രണ്ടര മണിക്കൂറിനടുത്ത് സോഷ്യൽ നെറ്റ് വർക്കിലും മെസ്സേജുകൾക്കുമായി ചെലവിടുന്നുണ്ടെന്നാണ് ഗ്ലോബൽ വെബ് ഇന്റക്സ് നടത്തിയ ഒരു പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ആളുകളിൽ ആസക്തിയുണ്ടാക്കുന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നതിനാൽ അത് നമ്മുടെ കുറേ സമയം അപഹരിക്കുന്നതിൽ അത്ഭുതമില്ല മെസ്സേജ് പരിശോധിക്കുന്നതിനായിട്ടാണ് മിക്കപ്പോഴും നിങ്ങൾ ഫോൺ കയ്യിലെടുക്കുന്നതെങ്കിലും അറിയാതെ അതിൽ തുടരുന്നു അരമണിക്കൂറിന് ശേഷം ഇത്രയും സമയം എങ്ങനെ പോയി എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം തലച്ചോറിനെ സോഷ്യൽ മീഡിയ ഏത് തരത്തിലാണ് ബാധിക്കുക എന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂറോ സൈൻറ്റിസ്റ്റുകൾ കണ്ടെത്തിയിരിക്കുന്നത് മെസ്സേജുകളും ലൈക്കുകളും വരുമ്പോൾ നമ്മളിലുണ്ടാകുന്നത് ചൂതാട്ടത്തിനോടും മയക്കുമരുന്നിനോടും തോന്നുന്ന പ്രതികരണമാണെന്നും അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ ഇടയാക്കുന്നതെന്നുമാണ് ഈ പ്രവൃർത്തി തലച്ചോറിൽ ഡോപ്പമെൻ ഉൽപാദിക്കാൻ കാരണമാകും നമ്മളിൽ ഫീൽഗുഡ് വികാരം ഉണ്ടാക്കുന്ന ഹോർമോൺ ആണിത് ഡോപ്പാമൈൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതോടെ നമ്മൾ അതിനോട് കൂടുതൽ ആസക്തി കാട്ടുകയും വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നു മിക്ക ആളുകളും അവരുടെ ദിവസം ആരംഭിക്കുന്നത് തന്നെ സോഷ്യൽ മീഡിയയും മെസ്സേജുകളും പരിശോധിച്ചുകൊണ്ടായിരിക്കും ഇതാകട്ടെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപുതന്നെ അപ്രസക്തമായ കുറേ വിവരങ്ങൾ മനസ്സിൽ കുത്തിനിറയ്ക്കും സോഷ്യൽ മീഡ്യയിൽ നിങ്ങൾ കാണുന്ന കണ്ടെൻറ്റ്കളിൽ തൊണ്ണൂറുശതമാനത്തിലധികവും ജീവിതത്തിൽ ഒരുവിധത്തിലും നിങ്ങളിൽ സ്വാധീനിക്കാത്തതും നിങ്ങൾക്ക് നിയന്ത്രണമില്ലാത്തതുമായിരിക്കും മറ്റ് നൂറുകണക്കിന് ആളുകൾ അവരുടെ ജീവിതത്തിൽ എന്തുചെയ്യുന്നു എന്ന് അറിയേണ്ട കാര്യം നിങ്ങൾക്കില്ല യാതൊരു വിധത്തിലും നമ്മെ ബാധിക്കാത്ത ഒരുപാട് വിവരങ്ങൾ ഉപയോഗിക്കുന്ന തരത്തിൽ നമ്മളിൽ ആസക്തിയുണ്ടാക്കാൻ സോഷ്യൽ മീഡ്യക്ക് കഴിയും ദിവസം മുഴുവനും സോഷ്യൽ മീഡ്യേൽക്കണ്ട കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയും നിങ്ങളുടെ മാനസിക വ്യക്തത ഇല്ലാതാക്കുകയും ചെയ്യും സോഷ്യൽ മീഡ്യയിൽനിന്ന് ഇടയ്ക്കിടെ ഉത്തേജനമാഗ്രഹിക്കുന്നതിനാൽ കുറച്ചുസമയം ശാന്തമായി സമയം ചെലവഴിക്കുന്നതുപോലും അസ്വസ്ഥത ഉളവാക്കും പരസ്പര സംസാരം പോലും സാധിക്കാത്തതരത്തിൽ ഫോണിൽ മുഴുകിയിരിക്കുന്ന ഒരു സുഹൃത്തിനെയോ കുടുംബാങ്കത്തെയൊ നിങ്ങൾക്കറിയാമായിരിക്കും ചിലപ്പോൾ അത് നിങ്ങൾതന്നെയാണെങ്കിലോ സമൂഹമായുള്ള ബന്ധത്തേക്കാൾ ഏറെ ഒറ്റപ്പെടൽ അനുഭവിക്കപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ സാമൂഹ്യ മാധ്യമമെന്ന് വിളിക്കുന്നത് വൈരുധ്യമാണ് ആഴ്ചയിൽ ഒമ്പത് തവണയിൽ താഴെ മാത്രം സോഷ്യൽ മീഡ്യ ഉപയോഗിക്കുന്നവരേക്കാൾ സോഷ്യൽ മീഡ്യ പ്ലാറ്റ്ഫോമുകൾ ആഴ്ചയിൽ അമ്പത്തെട്ട് തവണയെങ്കിലും സന്ദർശിച്ചിട്ടുള്ളവർക്കാണ് സമൂഹത്തിൽ കൂടുതൽ ഒറ്റപ്പെട്ടതായി തോന്നുക എന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു അതും മൂന്ന് മടങ്ങ് വരെ സോഷ്യൽ മീഡ്യ കാരണം മറ്റുള്ളവരുമായി നേരിട്ട് ഇടപെഴകാൻ കുറഞ്ഞ സമയം മാത്രമെ നിങ്ങൾ വിനിയോഗിക്കൂ കാരണം നിങ്ങൾക്കെപ്പോഴും പുതിയ നോട്ടിഫിക്കേഷൻ പരിശോധിക്കാനോ സ്റ്റോറികൾ കാണാനോ മെസ്സേജ് വായിക്കാനോ ഉണ്ടാകും നോട്ടിഫിക്കേഷന്റെ സ്ഥിരമായ ബീപ്പ് ശബ്ദം നിങ്ങളുടെ ശ്രദ്ധയെ ബാധിക്കാം നിങ്ങളിൽ ആകാംക്ഷയും പിരിമുറുക്കവും തോന്നിക്കുന്ന തരത്തിൽ തലച്ചോറിന്റെ രസതന്ത്രം തന്നെ അത് മാറ്റിയേക്കാം നോട്ടിഫിക്കേഷനുകൾ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാനും നിങ്ങളറിയാതെ തന്നെ ഉത്പാദന ക്ഷമത നാൽപ്പത് ശതമാനം വരെ കുറക്കാനും കാരണമായേക്കാമെന്ന് പല ഗവേഷകരും മുന്നറിയിപ്പ് നൽകുന്നു സോഷ്യൽ മീഡ്യേൽ എത്തിനോക്കുന്നതിനായി ഇടക്കിടെ ശ്രദ്ധ മുറിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയെ സ്ഥിരമായി ബാധിക്കുകയും ഏകാഗ്രതയെത്തന്നെ ബാധിക്കുകയും ചെയ്യുമെന്ന് വിവിധ ഗവേഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡ്യേൽ പോസ്റ്റ് ചെയ്യുന്നത് പലപ്പോഴും ആളുകൾ അവരുടെ സന്തോഷകരമായ നിമിഷങ്ങൾ മാത്രമാണെന്ന് മിക്ക യൂസേസിനും അറിയാം എന്നാൽ അത് കണ്ട് എല്ലായ്പ്പോഴും മറ്റുള്ളവരുമായി നമ്മെ താരതമ്യപ്പെടുത്തുന്നതാണ് നമ്മുടെ ശീലം സോഷ്യൽ മീഡിയ സൈറ്റുകൾ ഉപയോക്താക്കളുടെ വൈകാരിക ക്ഷേമത്തെ മോശമായി ബാധിക്കുന്നു എന്ന് പഠനങ്ങൾ നിരന്തരമായി കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു സോഷ്യൽ മീഡിയ ഉപയോക്താക്കളുടെ മാനസികാരോഗ്യത്തെ ബാധിച്ചേക്കാമെന്ന് സത്യത്തിൽ ഫേസ്ബുക്ക് പോലും പരസ്യമായി സമ്മതിച്ചിട്ടുണ്ട് സോഷ്യൽ നെറ്റ്വർക്കിങ് പ്ലാറ്റ്ഫോമുകളിൽ ഉപയോക്താക്കളുടെ മാനസികാരോഗ്യത്തെ ഏറ്റവും കൂടുതൽ മോശമായി ബാധിക്കുന്നത് ഇൻസ്റ്റാഗ്രാമാണെന്ന് സമീപകാലത്തെ നടത്തിയ പഠനങ്ങൾ തെളിയിക്കുന്നു സോഷ്യൽ നെറ്റ്വർക്കുകൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് സ്നാപ്ചാറ്റ് യൂറ്റൂബ് ട്വിറ്റർ തുടങ്ങിയ ഉപയോക്താക്കളുടെ ആരോഗ്യത്തെ മോശമായും പോസിറ്റീവായും എത്രമാത്രം ബാധിച്ചിരിക്കുന്നു എന്നത് കണ്ടെത്തുകയായിരുന്നു പഠനം ലക്ഷ്യമിട്ടത് അവരുടെ ആശങ്കകൾ സമൂഹവുമായുള്ള ബന്ധം സ്വത്വബോധം ഉറക്കം ശാരീരിക പ്രതിഛായ തുടങ്ങിയവയെ കുറിച്ചൊക്കെ ചോദ്യങ്ങളുണ്ടായിരുന്നു പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത് യൂറ്റൂബ് മാത്രമാണ് പോസിറ്റീവായ മാറ്റം ഉണ്ടാക്കുന്നതെന്നാണ് മറ്റെല്ലാ സോഷ്യൽ നെറ്റ്വർക്കുകളും മോശമായാണ് ബാധിക്കുന്നത് സോഷ്യൽ മീഡ്യ പൂർണ്ണമായും നെഗറ്റീവ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത് ശരിയല്ല ഒരുപാട് പോസിറ്റീവ് വശങ്ങളും അതിനുണ്ട് അവയിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കുന്നതിന് പകരം നമ്മളിലതുണ്ടാക്കുന്ന മോശ ഫലം കുറക്കുന്നതിന് വഴികളുണ്ട് ഹ്രസ്വ നേരത്തേക്ക് മിതമായ രീതിയിലുള്ള സോഷ്യൽ മീഡ്യ ഉപയോഗം വലിയ തോതിൽ നെഗെറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല അതിനാൽ സോഷ്യൽ മീഡ്യ ബോധപൂർവ്വം കൃത്യമായ ലക്ഷ്യങ്ങളോടെ ഉപയോഗിക്കുകയാണ് വേണ്ടത് സോഷ്യൽ മീഡ്യേടെ നെഗെറ്റീവ് ഇമ്പാക്റ്റ് കുറക്കു ന്നതിന് നിങ്ങൾ ചെയ്യാവുന്ന നടപടികളിതാണ് ഉണർന്ന ഉടനെ ഫോൺ ചെക്കുചെയ്യുന്നത് നിർത്തുക ഉറങ്ങാൻ പോകുമ്പോൾ ഇന്റെർനെറ്റ് ഓഫ് ചെയ്തിടുക ഹോം സ്ക്രിൽനിന്ന് സോഷ്യൽ മീഡ്യ ആപ്പുകൾ മാറ്റുക അപ്പോൾ ഓരോ തവണയും നോക്കാനുള്ള പ്രലോഭനം ഇല്ലാതാവും സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനിൽ നിന്നുള്ള നോട്ടിഫിക്കേഷനുകൾ ഓഫ് ചെയ്തിടുക യൂസേജ് ടൈം കണ്ടെത്താനുള്ള ആപ്പുകളുപയോഗിച്ച് എത്ര സമയം നിങ്ങളുപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക സോഷ്യൽ മീഡ്യ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിനുപകരം മറ്റെന്തെങ്കിലും നല്ല ശീലം തുടങ്ങുകയോ എന്തെങ്കിലും നല്ല കാര്യത്തിൽ വ്യാപൃതനായിരിക്കുകയോ ചെയ്യുക സോഷ്യൽ മീഡ്യ ആയിരിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് സ്വയം വ്യക്തത വരുത്തുക സോഷ്യൽ മീഡിയ ഡീടോക്സ് ചെയ്യുക അല്ലെങ്കിൽ ഇടവേള എടുക്കുക കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലായി രണ്ട് തവണ സോഷ്യൽ മീഡ്യേൽ നിന്ന് നീണ്ട ഒരു ഇടവേള എടുത്തിട്ടുണ്ട് ഞാൻ സോഷ്യൽ മീഡിയ നമ്മളുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ഞാൻ ശുപാർശ ചെയ്ത ചെയ്യുന്ന ഒന്നാണിത് സോഷ്യൽ മീഡ്യേൽ നിന്നുള്ള ഇടവേള എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നിശ്ചിത കാലത്തേക്ക് സോഷ്യൽ മീഡ്യേൽ നിന്ന് അകന്ന് നിൽക്കുക എന്നതാണ് സാധാരണ മുപ്പത് ദിവസമെന്നതാണ് കണക്കെങ്കിലും ഒന്നോ രണ്ടോ ആഴ്ച്ച ആഴ്ചയായും നടത്താം ജീവിതത്തിൽ സോഷ്യൽ മീഡ്യ ചെലുത്തുന്ന മോശം സ്വാധീനത്തെക്കുറിച്ച് ഓരോ ദിവസവും കൂടുതലാളുകൾ ബോധവാന്മാരായിക്കൊണ്ടിരിക്കുന്നതിനാൽ ഇത്തരം ഇടവേളകൾ എടുക്കുന്നത് കൂടിവരുന്നു ആദ്യം കുറച്ച് മാസത്തേക്ക് സോഷ്യൽ മീഡ്യ ഉപയോഗം നിർത്തിയപ്പോൾത്തന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരുകാര്യം എന്റെ ജീവിതത്തിൽ വലിയ മൂല്യമൊന്നും അത് ഉണ്ടാക്കുന്നില്ല എന്നതാണ് ഈ തിരിച്ചറിവ് വീണ്ടും സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ അതിൽ ചെലവിടുന്ന സമയം ഗണ്യമായി കുറക്കാൻ കാരണമായി സോഷ്യൽ മീഡ്യിയൽ ഒഴിവുസമയം ചെലവഴിക്കുമ്പോൾ എനിക്ക് ഒരിക്കൽ ഒരിക്കലും സമയമുണ്ടാകാതിരുന്നതോ പരിഗണിക്കാതിരുന്നതോ ആയ കാര്യങ്ങൾ ങ്ങൾക്ക് സമയം ചെലവഴിക്കാനും ഇതെന്നെ സഹായിച്ചു ഞാൻ ഗിത്താർ വായിക്കാൻ പഠിച്ചു ധ്യാനം പരിശീലിക്കാൻ തുടങ്ങി ധാരാളം വായിച്ചു ജേണലിങ് തുടങ്ങി എനിക്കുവേണ്ടി കൂടുതൽ സമയം വിനിയോഗിച്ച് തുടങ്ങി ഒഴിവ് സമയങ്ങൾ സോഷ്യൽ മീഡ്യയിൽ ചെലവഴിക്കുന്ന സ്ഥിരം ശീലം ഇല്ലാതായതോടെ മറ്റ് വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ ചെയ്യാൻ ആരംഭിച്ചു സോഷ്യൽ മീഡ്യ നിങ്ങളുടെ സമയവും മനസ്സും ഏറെ കവർന്നെടുക്കുന്നുവെങ്കിൽ നിങ്ങളുടേതായ പുതിയ വശങ്ങൾ കണ്ടെത്താനും നിങ്ങളിലുറങ്ങിക്കിടക്കുന്ന പ്രതിഭയെ ഉണർത്താനുമായേക്കാം അതിനാൽ സോഷ്യൽ മീഡ്യ ഒരു ഓപ്ഷൻ ആയിരുന്നില്ലെങ്കിലും നിങ്ങൾ എങ്ങനെ സമയം ചെലവഴിക്കുമായിരിക്കും എന്നാലോചിക്കുന്നത് നല്ലതായിരിക്കും മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങളറിഞ്ഞില്ലെങ്കിൽ ജീവിതത്തിൽ വലിയ നഷ്ടമാണെന്ന മിഥ്യാധാരണ സോഷ്യൽ മീഡിയയോടൊപ്പം വന്നു എന്നാൽ പത്തുപതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ മറ്റ് നൂറുകണക്കിനാളുകൾ എന്തുചെയ്യുന്നു എന്നറിയാതെ തന്നെ നമ്മളൊരു കുഴപ്പവും കൂടാതെ ജീവിച്ചിരുന്നു നിങ്ങളെപ്പോലുള്ള ഉപയോക്താക്കളുടെ വിവരങ്ങളും ശ്രദ്ധയും പ്രയോജനപ്പെടുത്തി സോഷ്യൽ മീഡ്യ കമ്പനികൾ ശതകോടി ഡോളറുണ്ടാക്കുന്നു നിങ്ങളുടെ സമയം ഊർജ്ജം ശ്രദ്ധ എന്നിവ വിറ്റ് കാശാക്കുന്നതിന് പകരമായി എന്താണ് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത് എന്ന ചോദ്യം ഞാൻ നിങ്ങളുടെ ചിന്തക്കായി വിടുന്നു